പാട്ട് കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും മെലഡി സോങ്സ് അങ്ങനെയുള്ള സോങ്സൊക്കെ ആണ് കേൾക്കാറ് അപ്പോൾ മെലഡി സോങ്സെന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കേൾക്കാർ അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനുണ്ടായതിൽപ്പിന്നെ മോന് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേട്ടുറങ്ങാനാണിഷ്ടം ആദ്യം തന്നെ അവൻ്റെ അച്ഛൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് അതായത് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് ഉറക്കുക അപ്പോൾ അവനിപ്പോൾ തൊട്ടിലിലൊക്കെ കിടന്ന് ഉറക്കണ ഉറങ്ങണമെങ്കിൽ തന്നെ അവന് പാട്ട് വെക്കണം അപ്പോൾ അതെനിക്ക് വല്യ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഉറങ്ങുമ്പോൾ സൈലന്റ് ആയിട്ട് ഉറങ്ങണം പിന്നെ ഇവന്റെ കൂടെ കിടന്ന് ശീലിച്ചു ശീലിച്ചു എനിക്കും ഇപ്പോൾ പാട്ടൊന്നും കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ലാത്തൊരു അവസ്ഥ ആയി എനിക്ക് മെലഡി സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മെലഡി സോങ്സ് ആണ് കൂടുതൽ കേൾക്കാർ പിന്നെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡപ്പാംകൂത്തു അങ്ങനത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് പാട്ടുകാരെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യേശുദാസിനെ ഇഷ്ടമാണ് പിന്നെ ചിത്രേനെ ഇഷ്ടമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സിദ് ശ്രീറാമിനെയാണ് അപ്പോൾ അടിപൊളി നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള എല്ലാവരേയും ഇഷ്ടം പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പാട്ടു കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ വിരളമായിരിക്കുമല്ലോ